എനിക്കൊരു ട്രഡീഷണൽ വീടാണ് വേണ്ടത് നാലുകെട്ടാണെങ്കിൽ വളരെ സന്തോഷം ഒതുങ്ങിയ ഒരു നാലുകെട്ട് പിന്നെ വുഡിൻ്റെ വർക്കായിരിക്കണം

അ അങ്ങത്തെയാണ് ഉദ്ദേശിക്കുന്നത് റെൻറ്റിനെടുക്കാം

അപ്പോൾ റെൻറ്റ്

വെജ് മതി

ഇത് ഇപ്പോൾ ഹോം സ്റ്റേ പോലെയാണോ ഉദ്ദേശിക്കുന്നത് അവര്

ആംബിയൻസൊക്കെ എങ്ങനെയാണ് ആംബിയൻസൊക്കെ എങ്ങനെയാണ് അവിടത്തെ ആംബിയൻസൊക്കെ എങ്ങനെയാണ്

അ നൈസ് ഓക്കേ അപ്പം റെൻറ്റിനാണെങ്കില് വൺ മന്തിനാണെങ്കില് ഫോർട്ടീൻ തൗസന്റൊ ഓക്കേ നമുക്കൊരു വൺ മന്ത് റെൻറ്റിനെടുത്ത് നോക്കാം

ഓക്കേ ഞാനും വന്ന് വന്ന് നോക്കിടിട്ട് നമുക്കത് ഞാൻ ഉദേശിക്കുന്നതാണെങ്കിൽ നമുക്കത് ഓക്കേ ചെയ്യാം ഫൈനൽ ചെയ്യാം ഓക്കേ